ആ ഇത് സ്കൂളിൽന്ന് ആണേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വേദയുടെ ക്ലാസ് ടീച്ചർ ആണ് ഞാൻ വേദയുടെ അമ്മ അല്ലേ നിങ്ങൾ നിങ്ങൾ പേടിക്കുക ഒന്നും വേണ്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടീട്ട് ആണ് ഞാൻ വിളിക്കുന്നത് ഇല്ല നിങ്ങൾ പേടിക്കുക ഒന്നും വേണ്ട അത് മോൾക്ക് രാവിലെ വന്നപ്പോൾ തൊട്ട് ചെറിയ ഒരു ക്ഷീണം ഒന്ന് രണ്ട് പ്രാവശ്യം ആയിട്ട് വോമിറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് എന്നാന്ന് അതുകൊണ്ട് ആണ് ഞാൻ വിളിച്ചത് രാവിലെ വരുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടേനോ നിങ്ങൾ പേടിക്കുക ഒന്നും വേണ്ട കുട്ടിക്ക് ഒരു ഇപ്പോൾ പ്രശ്നം ഒന്നും ഇല്ല ഞങ്ങൾ കഞ്ഞിവെള്ളം കൊടുത്തു സ്റ്റാഫ് റൂമിൽ കൊണ്ട് വന്ന് ഇരുത്തീട്ടാ ഉള്ളത് അവൾക്ക് ഇപ്പോൾ പ്രശ്നം ഒന്നും ഇല്ല പിന്നെ രാത്രി എന്തെങ്കിലും മോശമായ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചോ ഓ തീർച്ചയായും നിങ്ങൾ വന്ന് പോയിട്ട് കൂട്ടുന്നെങ്കിൽ അങ്ങനെ കൂട്ടാ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോകാം ആ ഞങ്ങൾ എന്തായാലും നിങ്ങളെ കാത്ത് നിൽക്കുന്നില്ല ഞങ്ങൾ എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി കളയാം കാരണം കുട്ടി രണ്ട് പ്രാവശ്യം വൊമിറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഇനി അത് കൂടുതൽ ആകുന്നേന് മുന്നേ നമ്മൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോവാ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ട്രിപ്പ് രാജേൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾ അവിടെ എത്തിയാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളെ കുട്ടീനെ ഡോക്ടറെ അടുത്ത് കാണിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവക്ക് വയ്യാത്തത് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേയ്ക്ക് പോകാലോ അത് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം എന്നാൽ